ഞങ്ങൾ ഇവിടെ പ്രദേശത്തിനടുത്ത് പ്രശസ്തമായ കോളേജുകൾ ഒരുപാടുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കോളേജാണ് കേരളത്തിലെ ചമ്മാട് എന്ന സ്ഥലം സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ധാരൽഹുദ ഇസ്ലാമിക് യൂണിവഴ്സിറ്റി ഈ സ്ഥാപനം വളരെ മഹത്തായ ഒരു സ്ഥാപനമാണ് ആ കോളേജിൽ നിന്ന് ഒരുപാട് ഏകദേശം ഇന്ന് വരെ മൂവായിരത്തിൽ അധികം അതിലെ ബിരുദം സ്ഥലം സ്വീകരിച്ചവർ ഇതുവരെ പുറത്ത് ഇറങ്ങിയിട്ടുണ്ട് അവ ആ ഇറങ്ങിയവരൊക്കെ ഇപ്പോൾ പല ദേശത്ത് പല രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലുമൊക്കെ ആയിട്ട് പഠിപ്പിക്കുകയും അതുപോലെ പ്രബോധന മാർഗ്ഗങ്ങളിലൊക്കെ ഏർപ്പെടുകയും ചെയ്യുകയാണ് മാത്രമല്ല ഈ ധർൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന സ്ഥാപനം പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് മതപരവും ഇസ്ലാമികപരമായിട്ടുള്ള പഠനങ്ങൾ വ്യക്തമാക്കി കൊടുക്കുക അതുപോലെ അതിനോട് കൂടെ ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസവും കൂടി നൽകുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യം അത് സാക്ഷാത്കരിക്കുന്നതിൻ്റെ നാൽപത് വാർഷികം നാൽപതാം വർഷിക പരിപാടി കഴിഞ്ഞ കൊല്ലം ഈ ക്യാമ്പസിൽ നടക്കുകയുണ്ടായി ഇവിടെ സ്ഥിരമായി വന്നുപോകുന്ന ഒരു സമ്പ്രദായമല്ല ഇവിടെ കുട്ടികൾക്കുള്ളത് എല്ലാ ദിവസവും ഇവിടെ തന്നെ താമസിച്ച് ഇവിടുത്തെ തന്നെ ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടെ തന്നെ സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് മാസത്തിൽ രണ്ട് ദിവസം മാത്രമാണ് ധാരൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന ഈ കോളേജിൽ നിന്ന് ലീവ് അനുവദിക്കുന്നത് മാത്രമല്ല ഇവിടെ മറ്റു സ്ഥാപനങ്ങളിൽ നിന്നും ആൾ കുട്ടികൾ ഇങ്ങോട്ട് വരുന്നുണ്ട് രണ്ട് വർഷത്തെ പി ജി പഠനത്തിനായിട്ട് ഇവിടേക്ക് പി ജി പഠനത്തിന് ആവശ്യാർത്ഥം മാത്രം വരുന്ന വിദ്യാർത്ഥികളും ഈ ക്യാമ്പസിൽ ഉണ്ട് മറ്റ് ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു കോളേജാണ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ആ കോളേജ് എന്നുള്ളത് ഇന്ത്യയിൽ തന്നെ വളരെ പ്രശസ്തമായ ഒരു കാലിക്കട്ട യൂണിവേഴ്സിറ്റി ആണ് കോളേജാണ് അതിൽ ഏകദേശം ലക്ഷ കണക്കിന് ആളുകളാണ് ഇതുവരെ പഠിച്ച് കൊണ്ടിരിക്കുന്നത് പല ആളുകൾ പല പ്രദേശങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ പി എച്ച് ഡി റിസേർച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടേക്ക് വരുന്നവരുണ്ട് അവരുടെ ഒക്കെ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് അവർ മടങ്ങുമ്പോൾ വളരെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ എല്ലാം പൂർത്തീകരിച്ചു കൊണ്ടാണ് അവർ പോകുന്നത് പിന്നെ എൻ്റെ കുടുംബത്തിൽ നോക്കുകയാണെങ്കിൽ പല ആളുകൾ എൻ്റെ കുടുംബത്തിൽ അവിടെ പല കോളേജുകളിൽ ജോലി ചെയ്യുന്നവരുണ്ട് പഠിക്കുന്നവരുണ്ട് അതിൽ പെട്ടവരാണ് ഒന്ന് എൻ്റെ അമ്മായിൻ്റെ മകൻ ഇവിടെ ധാരൽഹുദ ഇസ്ലാം യൂണിവേഴ്സിറ്റിൽ ലെക്ച്ചർ ആണ് അധ്യാപകനാണ് പന്ത്രണ്ട് വർഷത്തോളമായിട്ട് പ്രൊഫസ്സർ ആയിട്ട് ജോലി ചെയ്യുകയാണ് അപ്പം ഇവരൊക്കെ പഠിക്കുന്നത് പലരും പല മേഖലകളെക്കുറിച്ചാണ് പഠിക്കുന്നത് ചില ഇസ്ലാമികമായിട്ടുള്ള നിയമങ്ങളെക്കുറിച്ചും പ്രബോധന മാർഗ്ഗങ്ങളെക്കുറിച്ചും പഠിക്കുമ്പോൾ മറ്റു ചില്ലർ അവർ മെഡിക്ക മെഡിസിൻ നേഴ്സിംഗ് അതുപോലെ ആർക്കിയോളജി സൂോളജി തുടങ്ങിയ പല വിവിധ മേഖലകളെക്കുറിച്ച് അവർ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പ്രൊഫസർമാരും അധ്യാപകന്മാരുമൊക്കെ ഈ ക്യാമ്പസിലെത്തി കുട്ടികൾക്ക് ഇൻട്രാക്ഷൻ സെക്ഷൻസ് സംഘടിപ്പിക്കുമ്പോൾ അത് വളരെ വിജയകരമായ രീതിയിൽ എത്തിയിട്ടുണ്ട്